എന്റെ പ്രദേശ് പ്രദേശത്തെ പ്രധാന മാധ്യമം എന്ന് പറയുന്നത് റേഡിയോ ഉണ്ട് ടിവി ഉണ്ട് അതില് റേഡിയോ പൊതുവേ ഇപ്പൊൾ ആളുകൾ അധികം ഉപയോഗിക്കുന്നില്ലല്ലോ വളരെ ചുരുക്കം പേരേ റേഡിയോ ഉപയോഗിക്കുന്നുള്ളൂ ടെലിവിഷന്റെ പ്രാധാന്യം വന്നതോടെതന്നെ ടെലിവിഷൻ സിനിമ തുടങ്ങിയതിന്റെയൊക്കെ ഇത് വന്നതോടെതന്നെ റേഡിയോയുടെ പ്രാധാന്യം കുറയുകയും അതോടൊപ്പം ഒരുവിധം ആളുകൾ എല്ലാവരും ടെലിവിഷനും സിനിമയും തുടങ്ങി മറ്റ് പല മേഖലകളിലേക്കും ഫോൺ തുടങ്ങി പല പല ഇതിലേക്കാണ് ആളുകൾ ഇപ്പോൾ പോകുന്നത് അതിൽത്തന്നെ ഏറ്റവും നോക്കുവാണെങ്കിൽ ഫോണ് ഫോൺ മൊബൈൽ ഫോൺ ആണ് ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരുവിധം എല്ലാവരുടെയും ഒരു ഇതെന്ന് പറയുന്നത് അതായത് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഫോണിൽ കളിയ്ക്കാനും ഗെയിം കളിക്കാനും ഫോണിൽ സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യാനുമൊക്കെയാണ് ഇപ്പൊൾ സമീപ കാലത്ത് റേഡിയോ ടിവി ഇതൊക്കെ വിട്ട് മൊബൈലിലേക്ക് തന്നെയാണ് ഒരുവിധം ആളുകളെല്ലാം പോയിരിക്കുന്നത്